നമ്മള് ഫാമിലിയായിട്ടൊരു നീണ്ടയാത്രയ്ക്ക് പോകുമ്പോൾ കയ്യിൽ കരുതുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഇപ്പോള് ഇപ്പോള് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞ് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് മൂന്ന് പേർക്ക് വേണ്ട കമ്പ്ലീറ്റ് സാധനങ്ങള് കയ്യില് കരുതണം പ്രത്യേകിച്ച് കുഞ്ഞിനാണ് കൂടുതലും കൂടി നമ്മള് ഫുഡ് അങ്ങനത്തെ ഇപ്പോള് നമ്മള് പുറത്ത് പോകുമ്പോൾ എല്ലാതരം ഫുഡും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ചില സമയങ്ങളില് ഷോപ്പുകളും കടകളും റെസ്റ്റോറൻറ്സും ചിലപ്പോള് അവൈലബിള് ആയെന്നും വരില്ല അപ്പോള് യാത്രയ്ക്ക് പോകുമ്പോള് ഇൻസ്റ്റൻറ്റ് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളും കയ്യില് കരുതാറുണ്ട് ഇപ്പോള് മെയിനായിട്ട് നമ്മള് കരുതുന്നത് കുടിക്കാനുള്ള വെള്ളം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻറ്റായിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും ബേക്കറി പോലത്തെ ഫുഡ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും പിന്നെ മെയിനായിട്ട് മെഡിസിൻ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മെയിനായിട്ട് മെഡിസിൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നുകഴിഞ്ഞാല് ഇപ്പോള് വോമിറ്റിങ്ങിനുള്ള ചിലർക്ക് യാത്ര ചെയ്യുമ്പോള് വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോള് അതിനുള്ള ടാബ്ലെറ്റ് എന്തെങ്കിലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ചില ഫുഡ്ഡുകള് മാറിക്കഴിക്കുമ്പോള് വയറിന് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോള് അതിനുള്ള മെഡിസിൻസ് പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോള് കുഞ്ഞുങ്ങൾക്ക് വേണ്ട മെഡിസിൻസ് എല്ലാം കരുതും പിന്നെ മെയിനായിട്ട് ഡ്രസ്സുകള് ഡ്രസ്സെന്ന് പറയുമ്പോള് ഇപ്പോള് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണെങ്കില് അതിനനുസരിച്ച് സ്വെറ്റര് അങ്ങനത്തെ ക്യാപ്പുകളുമെല്ലാം നമ്മള് എടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഇതേപോലെ യൂസ്ഡായിട്ടുള്ള വേസ്റ്റുകളോ അല്ലെങ്കില് ഈ പറഞ്ഞതുപോലെ ഡ്രസ്സുകളൊക്കെയുണ്ടെങ്കില് അതിടാനായിട്ടൊരു വേറെയൊരു എക്സ്ട്രാ ഒരു ബാഗും കൂടി എടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഇതേപോലെ ന്യൂസ് പേപ്പറുകള് കുറേ എടുക്കാറുണ്ട് എന്തെങ്കിലും നമുക്കിപ്പോള് ആവശ്യങ്ങള് വരുമ്പോൾ ഇപ്പോള് ഒന്ന് വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ തന്നെ നമുക്കൊന്ന് വിരിച്ചിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോള് നമ്മുടെ വേസ്റ്റ് തന്നെ എവിടെയെങ്കിലും കളയാനുണ്ടെങ്കില് നമുക്ക് തന്നെ അത് പോതിഞ്ഞ് ചിലപ്പോള് തിരിച്ച് നല്ലയൊരു ഇപ്പോള് ഉപേക്ഷിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കില് നമുക്ക് തന്നെയത് ഒരു പേപ്പര് കൊണ്ടുതന്നെ പോതിഞ്ഞ് ഒരു ഇപ്പോള് ഇപ്പോള് പെട്ടെന്നൊരു കവര് കിട്ടിയില്ല ഒരു ന്യൂസ് പേപ്പറുണ്ടെങ്കില് അതില്ത്തന്നെ പോതിഞ്ഞ് നമുക്ക് കയ്യില് വെച്ച് വേസ്റ്റിടാൻ പറ്റിയ സ്ഥലവും സൗകര്യവും കാണുമ്പോള് കൊണ്ട് നമുക്കവിടെ ഉപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ ന്യൂസ് പേപ്പര് കയ്യില് കരുതാറുണ്ട് പിന്നെ മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഫുഡ് ഡ്രസ്സ് മെഡിസിൻ അങ്ങനെ വലിയവര്ക്കും കുട്ടികൾക്കും ഇതൊക്കെ തന്നെയാണ് കരുതാറുള്ളത് ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇത്രയൊക്കെയാണ് ഒരു യാത്രയ്ക്ക് പോകുമ്പോള് മെയിനായിട്ട് നമ്മള് റെഡിയാക്കുന്ന ഇപ്പോള് കൊണ്ടുപോകുമ്പോള് തയ്യാറാക്കുന്ന കാര്യങ്ങള്